ഹലോ ഡോക്ടർ ആണോ എനിക്ക് രണ്ട് ദിവസമായിട്ട് ഭയങ്കര ഇപ്പോൾ ജലദോഷവും പനി ഒക്കെ ആണ് അപ്പോൾ എന്താണ് ചെയ്യുക ആ ഇപ്പോൾ ക്ലാസ്സിൽ ഒക്കെ കുറേ പേർക്ക് ഈ അലർജിയും കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പിടിച്ചതാണ്

പാരസെറ്റമോൾ ആ ഉണ്ടല്ലോ രണ്ട് ദിവസമായി തണുപ്പോ ആ തണുപ്പില്ല വണ്ടിയിലോട്ട് വണ്ടി നൈറ്റ് ഒന്ന് ഡ്രൈവ് ചെയ്തായിരുന്നു അപ്പോൾ അങ്ങനെ കൂടി പിന്നെ ഈ പൊടി ഒക്കെ അടിച്ച് ആ ഇങ്ങനെ കൂടുന്നൊക്കെയുണ്ട്

ആ ഉണ്ട് അത് എങ്ങനെയാണ് കഴിക്കേണ്ടത് ആ ആയിക്കോട്ടെ പിന്നെ കൂ ജലദോഷം ജലദോഷം ആ ജലദോഷം ചുമ ആ അപ്പോൾ കൂടുകയാണെങ്കിൽ നാളെ ആശുപത്രിയിൽ വരാമേ ആ ആ വേറെ സീനൊന്നുമില്ല പനി ആ അലർജി ഉണ്ട് ആ ആ ആ

അത് ഞാൻ ഒന്ന് വിളിച്ച് നോക്കി രാത്രി എന്താണ് ഇങ്ങനെ പനിക്കുന്നുണ്ട് ആ ആയിക്കോട്ടെ രണ്ട് ആ രണ്ട് ദിവസമായി എല്ലാവർക്കും ഇങ്ങനെ പനി പടരുവല്ലേ

ആ ബൈ ഗുഡ് നൈറ്റ്